പാലക്കാട് ജില്ലയിലെ പ്രധാന തൊഴിൽ ഉപജീവനമാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷിയാണ് കാരണം കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ നെൽ കൃഷികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് പാലക്കാട് തന്നെയാണ് പിന്നെ അതിൽ ഇപ്പോൾ വരുന്ന പുതു തലമുറകൾ പുതിയ ഗവൺമെൻറ്റ് ജോലി ഇല്ലങ്കിൽ പുറത്ത് പ്രൈവറ്റ് കമ്പനികൾ ജോലി അങ്ങനെ നോക്കി പോകുന്നു അതുകൊണ്ട് തന്നെ കൃഷിയാണ് കൂടുതലായിട്ടും പാലക്കാട് ജില്ലയിൽ ജോലികളായിട്ട് ചെയ്യുന്നത് ഇപ്പം കൃഷിപ്പണിക്കാരാണ് ഏറ്റവും കൂടുതൽ പാലക്കാടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ആൾക്കാര് പിന്നെ എക്സാമെഴുതി പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെയുള്ള റാങ്ക്കളിലേക്ക് കയറും അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട് പിന്നെ ഉള്ളത് പറഞ്ഞാച്ചാ പഠിച്ചിറങ്ങുന്ന പിള്ളാര് കറക്റ്റായിട്ടൊരു ഇതില്ലാത്ത കൊണ്ട് തൊഴിലില്ലായ്മയുണ്ട് കാരണം പാലക്കാട് കൂടുതല് കുട്ടികൾക്കുള്ള കറക്റ്റായിട്ടൊള്ളൊരു തൊഴിൽ ലഭിക്കാത്ത ചാൻസുണ്ട് പിന്നെ അത് അതിന് വേണ്ടതൊന്നും ഗവണ്മെൻറ്റ് ചെയ്യുന്നില്ല കാരണം അവര് പുറത്ത് നിന്നൊരു കമ്പനി എന്തെങ്കിലും വന്നാൽ മാത്രം ഇത്ര പേർക്ക് വർക്ക് കിട്ടുകയുള്ളു എന്ന് പറയാൻ പറ്റുകയുള്ളു ഇതാണെങ്കിൽ കിട്ടില്ല അതാണ് പ്രശ്നം അപ്പം തൊഴിലില്ലായ്മയുണ്ട് അല്ലാത്ത പക്ഷം എൻ്റെ അഭിപ്രായത്തില് കുട്ടികൾക്ക് തൊഴില് ഇപ്പം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്ന പോലെ എന്തെങ്കിലും സംരംഭമൊക്കെ പാലക്കാട് വരാനും അതിന് ഗവണ്മെൻറ്റ് എന്താന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യണം എന്നാണ്